നമ്മളുടെ പ്രദേശത്തെ വാർത്താ മാധ്യമസംബന്ധമായ പ്രശനങ്ങളെന്നു പറയുമ്പം ഇപ്പം ടി വി ഓൺ ചെയ്തുകഴിഞ്ഞാൽ ടീ വിയിൽ ഒരു ഏത് പിന്നെ സ്റ്റേഷനെടുത്താലും അവിടെയെല്ലാം ഒരേ ന്യൂസങ്ങോട്ട് പറയാൻ തുടങ്ങും ആ ഒരേ അങ്ങനെ കുറേ വ്യത്യസ്തപ്പെടുത്തിയൊക്കെ പറയണമെന്നുള്ളതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് പിന്നെ അതിനകത്ത് ഒരു വാർത്തയുണ്ടെങ്കിൽ അതിനെ പൊലിപ്പിച്ച് പൊലിപ്പിച്ച് പൊലിപ്പിച്ച് അത് വാർത്ത മാത്രം പറഞ്ഞാൽ മതിയല്ലോ ഇതിനും മാത്രം പൊലിപ്പിക്കാനെന്നായിരിക്കുന്നത് അങ്ങനെ പൊലിപ്പിച്ചു പറയുന്നതിനോട് അരോ കേൾക്കുന്നവർക്കൊരു അസ്വസ്ഥത തോന്നത്തക്ക രീതിയിലാക്കാതെ നല്ല രീതിയിൽ വാർത്തകൾ പറയുന്നതിനും ഒക്കെ അത് മാധ്യമങ്ങൾ തന്നെ അതിനകത്ത് ഇടപെടണം എന്നാണ് ഞാൻ പറയുന്നത് ഈ മാധ്യമങ്ങളാണിതുപോലെ വളച്ചൊടിക്കുന്നതും വലിച്ചു നീട്ടുന്നതും എല്ലാം കാര്യങ്ങൾ പറയും എന്നു പറഞ്ഞാലും ഇത് തന്നെ പിന്നേയും പിന്നേയും കേൾക്കുന്നവർക്ക് അരോചകമായ രീതിയിൽ സംസാരിക്കാതെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ സംസാരിക്കുന്നതിനും ഒക്കെയായിട്ട് പരിശ്രമിക്കണം അത് മെച്ചപ്പെടുത്തണമെങ്കിൽ മാധ്യമങ്ങൾ തന്നെ അത് കൈകാര്യം ചെയ്യണം മനുഷ്യനെ അരോചകപ്പെടുത്താതെ ഓരോ കാര്യങ്ങൾ തന്നെ പലപ്രാവശ്യം പറയാതെ വളച്ചൊടിക്കാതെ സത്യസന്ധമായ രീതിയിൽ ആ വാർത്തകൾ പറയുന്നതിന് പരിശ്രമിക്കണമെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് അത് മെച്ചപ്പെടുത്തണമെങ്കിൽ എന്താ ചെയ്യേണ്ടത് മെച്ചപ്പെടുത്തണമെങ്കിൽ മാധ്യമക്കാർ തന്നെ നോക്കണം മാധ്യമം അവരാണ് കൂടുതൽ നോക്കേണ്ടത് പിന്നെ അവരെ ഒത്തിരി ഗുണങ്ങളും ഉണ്ട് അവരെക്കൊണ്ട് ഒരുകാര്യം ഇപ്പം പണ്ടത്തെപ്പോലെ ലോകം മുഴുവൻ അറിയത്തക്ക രീതിയിൽ ആക്കണമെങ്കിൽ അവരെക്കൊണ്ടേ പറ്റത്തുള്ളൂ മാധ്യമങ്ങളാണ് ഈ എല്ലാവർക്കുംവേണ്ടി ചെയ്യുന്ന ഇത് ലോകം മുഴുവനറിയിക്കുന്നത് അതുകൊണ്ട് അതൊരു നല്ല കാര്യമായിട്ടാണ് തോന്നുന്നതിപ്പം എങ്കിലും ഒത്തിരി വളച്ചൊടിക്കാതെ കാര്യങ്ങളൊക്കെ നന്നായിട്ട് പറയാൻവേണ്ടി പരിശ്രമിച്ചിരുന്നെങ്കിൽ നന്നായിരുന്നു എന്നു മാത്രമേ എനിക്ക് പറയാനുള്ളു